ഉപഭോക്താക്കളിൽ നിന്നു നല്ല അഭിപ്രായം ലഭിച്ചിട്ടുണ്ട് ഒത്തിരി ഭംഗി ആയിരിക്കുന്നു ഇത്ര വില കുറച്ച് ഇത്ര നല്ല രീതിയിലെങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരൊത്തിരി പ്രശംസിച്ചിട്ടുണ്ട് ഇങ്ങനെ കൈ കൊണ്ട് തുന്നിയ സാധനങ്ങൾ വസ്ത്രങ്ങൾ കൊച്ചുടുപ്പുകൾ കുഞ്ഞുങ്ങൾക്കു സമ്മാനം ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ അവർ ഒത്തിരി പ്രശംസിക്കും ചേച്ചിക്കിതെങ്ങന തയ്ക്കാൻ പറ്റി ഇതെങ്ങനെ ചെയ്യാൻ പറ്റി ഇതൊത്തിരി നല്ലതാണല്ലോ നല്ല കർച്ചീഫാണല്ലോ കർച്ചീഫിൽ നല്ല പോലെ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് തയ്ച്ചിട്ടുള്ള പൂക്കൾ അതിൻ്റെ സൈഡിലെ അടുപ്പ് ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ ഒത്തിരി സന്തോഷവും അവരൊത്തിരി പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കൊച്ചുങ്ങളുടെ കൊച്ചു കൊച്ചു ഉടുപ്പുകൾ ഇതിങ്ങനെ പ്രിൻറ്റ് ചെയ്ത അതിൽ നല്ല എംബ്രോയ്ഡറി വെച്ചിട്ടുണ്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അത് കുഞ്ഞുങ്ങളിട്ടു കൊണ്ടു നടക്കുമ്പം തന്നെ കുഞ്ഞു പിള്ള കിടക്കുന്ന കൊച്ചുങ്ങൾക്കാണെങ്കിലും പിള്ള ഉടുപ്പുകൾ ഇച്ചിരി നടക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നല്ല ഉടുപ്പുകൾ ആ ഉടുപ്പുകളൊക്കെ ഇട്ട് അതുങ്ങളിങ്ങനെ ഓടി ഓടി ചാടി നടക്കുമ്പോൾ ഒത്തിരി ഒത്തിരി ഭംഗിയുണ്ട് ഇനി അതു കൊടുത്തിട്ട് അതാർക്കാണോ കൊടുത്തിട്ടുള്ള അവരുടെ പാരൻസും കുഞ്ഞുങ്ങളും നല്ലതാണ് നല്ലതാണെന്നൊക്കെ ഇങ്ങനെ ഒത്തിരി പ്രശംസിച്ചിട്ടുണ്ട് അതുപോലെ അവരിൻ്റെ പ്രശംസ കേൾക്കുമ്പം നമുക്കിനിയും സമയമില്ലെങ്കിലും നേരമില്ലെങ്കിലും നമുക്കൊത്തിരി പിന്നെയും ചെയ്യണം ചെയ്യണമെന്നുള്ള ഇതഭിപ്രായം വരും നല്ല പ്രശംസ കിട്ടുമ്പോൾ മാത്രം നമുക്കു മാത്രം കിട്ടിയാൽ പോര അതുപോലെ തന്നെ നമ്മളും മറ്റുള്ളവരെയും പ്രശംസിക്കുമ്പം മാത്രമേ അവർക്കുമുയരാൻ പറ്റുകയുള്ളൂ അങ്ങനെ പ്രശംസിക്കുമ്പോൾ നമ്മുടെ എത്ര നമ്മുടെ ഇപ്പം നമ്മൾ തയ്ച്ചു കൊടുക്കുന്ന തുന്നി കൊടുക്കുന്ന പെയിൻറ്റ് ചെയ്തു കൊടുക്കുന്ന എംബ്രോയിഡറി തയ്ച്ചു കൊടുക്കുന്നു സാരിയിലായാലും ബ്ലൗസിലായാലും അത് ഇഷ്ടം അത് നല്ലതല്ലെങ്കിലും ആദ്യമാണ് അവരൊത്തിരി പ്രശംസിക്കുമ്പം പിന്നെ നമ്മുടെ മനസ്സിനൊത്തിരി ഊർജ്ജം വരുന്നു ശക്തി വരുന്നു പിന്നെയും ചെയ്യണം ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് അങ്ങനെ നമ്മൾ നമുക്കും മറ്റുള്ളവരെ പ്രോത്സാഹനം കിട്ടുമ്പം നമുക്കെത്ര സന്തോഷം വരുന്നുണ്ടോ അതു പോലെ മറ്റുള്ളവരെയും നമ്മൾ സന്തോഷിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും പഠിക്കണം മടിച്ചിരിക്കുന്ന നമുക്കൊന്നു ചെയ്ത് നമുക്ക് മടി ആകുമ്പം മറ്റുള്ളവർ നല്ലത് നല്ലതെന്നു പറയുമ്പം നമുക്ക് പിന്നെയും പിന്നെയും ചെയ്യുന്നത് അങ്ങനെ ഒത്തിരി പ്രോത്സാഹനം കിട്ടിയതു പോലെ എനിക്ക് മുന്നോട്ടു പിന്നെയും ചെയ്യാൻ ചെയ്യാൻ തോന്നിയിട്ടുണ്ട് നല്ല നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ല സാരിയിലാണെങ്കിലും എംബ്രയ്ഡറി തയ്ച്ചിട്ടുണ്ട് പെയിൻറ്റിങ്ങ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചുരിദാറിൻ്റെ ടോപ്പിൽ അതുപോലെതന്നെ ചുരിദാറിൻ്റെ ചുന്നിയിൽ അങ്ങനെ ഒത്തിരി ഒത്തിരി ചെയ്യാനും പ്രോത്സാഹനം തരുന്നുണ്ട് അങ്ങനെ നമ്മുടെ കഴിവുകൾ ഒത്തിരി ഒത്തിരി വികസിപ്പിച്ചു നമ്മൾ വേറെ വേറെ മേഘലയാണ് നമ്മളിതു ചെയ്യുമ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ സാമ്പത്തികമായിട്ടൊരു സുസ്ഥിതി വരും നമുക്കു തന്നെ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാക്കാം പറ്റുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും മറ്റുള്ള പ്രോത്സാഹനവും നമ്മുടെ പരിശ്രമമാദ്യം അതുപോലെ മറ്റുള്ള പ്രോത്സാഹനം നമ്മുടെ കൂടെ ജീവിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക മറ്റ് കൂടെ ജീവിക്കുന്നവരെ നമ്മളും പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ നമുക്ക് സാമ്പത്തികമായിട്ടൊരു സുസ്ഥിതിയും മാനസികമായിട്ടുള്ള സന്തോഷമൊക്കെ വരുന്നു നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്കിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളും പണികളുമൊക്കെ അറിയുകയാണെങ്കിൽ നമുക്കൊരു ആദായമായി തീരുന്നു മറ്റുള്ളവരുടെ പ്രശംസ അതു കാണുമ്പോൾ അവർ നല്ലതെന്നു പറയുന്നു എന്തിനും നല്ലതെന്നൊരു അഭിപ്രായമാരിൽ നിന്നു കിട്ടിയാലും നമുക്ക് പിന്നെയും പിന്നെയും ചെയ്യാൻ ഒരു മനസ്സ് വരുന്നു അതുപോലെ നമ്മൾ പ്രശംസ കിട്ടിയിട്ടുണ്ട് നല്ലതാണ് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് അതു കൊണ്ട് പിന്നെയും സമയമില്ലെങ്കിലും നമ്മൾ സമയം കണ്ടെത്തി പിന്നെയും നമ്മളത് ചെയ്ത് ചെയ്ത് കുറച്ച് ടൗവൽസാണെങ്കിലും കുഞ്ഞുങ്ങളുടെ ചെറിയ ഫ്രോക്കാണെങ്കിലും ആൺകുട്ടികളുടെ ബനിയൻസാണെങ്കിലും അതൊക്കെ തയ്ക്കാനും അതിൽ ചെറിയ ചെറിയ പെയിൻറ്റുകൾ പെയിൻറ്റ് മേടിച്ച് ഇങ്ങനെ അടിച്ചു ചെറിയ ചില ചിത്രങ്ങൾ വരച്ചു കൊടുക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് നമ്മൾ മാനസികമായിട്ടൊത്തിരി സന്തോഷം അനുഭവിക്കുന്നു അതുപോലെ തന്നെ സാമ്പത്തികമായി ഉയർച്ച വരുന്നു എല്ലാ വിധത്തിലും ഒരു ഉയർച്ചയുടെ പടവുകൾ താണ്ടി നമുക്ക് മുന്നോട്ടു പോകാൻ സാധിക്കുന്നു